എനിക്കിഷ്ടമുള്ള മത്സ്യം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലിഷ്ടം മത്തിയാണ് ആൾക്കാർക്കൊക്കെ കൂടുതലും ഇഷ്ടമേതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ ഞാൻ പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ മത്തി അയല അങ്ങനെയുള്ളതൊക്കെ കഴിക്കൂ എനിക്ക് കൂടുതലും എനിക്കതാണിഷ്ടം പിന്നെ കിളിമീൻ എന്നുപറഞ്ഞൊരു മീനുണ്ട് അത് കഴിക്കും പിന്നെ നത്തലെന്നു പറഞ്ഞ ചെറിയ ചെറിയ മീനുണ്ട് അത് നല്ലോണം കഴിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആൾക്കാർക്ക് പൊതുവേ ഇഷ്ടം എന്നു വച്ചാൽ സീ ഫുഡ് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും പിന്നെ അല്ലാണ്ടെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയൊക്കെ പോവുമ്പം നമുക്ക് വേറെ അതായത് കരിമീൻ അങ്ങനെയുള്ളതൊക്കെ ഫ്രഷ് മീൻ നമുക്ക് പൊരിച്ചുതരും അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കൂടുതലും പിന്നെ നമുക്ക് ഏറ്റവും നല്ലത് കഴിക്കാൻ ഏറ്റവും നല്ലതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ മത്തിയാണ് മത്തിയിൽ കുറേ വിറ്റമിൻസ് അങ്ങനെയുള്ളതൊക്കെ കിട്ടും വിറ്റമിൻസ് മിനറൽസ് അങ്ങനെയുള്ളതൊക്കെ അതായത് പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല മത്തി ഇതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ മത്തിയാണ് മത്തി ഫ്രൈയ്ണ്ട് മത്തി മീൻകറിയുണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പം മീൻകറി ആയാൽ മീൻകറി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്കേറ്റവും ഇഷ്ടം മത്തി ഫ്രൈയാണ് പിന്നെ അതിൻ്റെ അതിൻ്റെ അതായത് അതിൻ്റെ മുട്ടയുണ്ടല്ലോ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭവത്തിലൊന്നുതന്നെയാണ് ഈ മത്തി അങ്ങനെയുള്ളതൊക്കെ മത്തി ഫ്രൈ അങ്ങനെയുള്ളതൊക്കെ